അതെയല്ലേ ആണല്ലോ ആരാ

ആ പറ്റുവല്ലോ ദേ ഇഷ്ടംപോലെ കോട്ടയത്ത് ഇഷ്ടംപോലെ റബ്ബർ ഉണ്ട് കോട്ടയം കോട്ടയത്തുണ്ട് പിന്നെ കാഞ്ഞിരപ്പള്ളി പാലാ ഇതൊക്കെ റബ്ബറിൻ്റെ കേന്ദ്രങ്ങളാ എവടെ വേണേനും പോകാം പോര് പിന്നെ ഉണ്ടല്ലോ ചെറിയ മരമുണ്ട് വലിയ മരമുണ്ട് ഇപ്പം മരം തൈ വെച്ച് പിടിപ്പിച്ചിരിക്കിന്നു അത് കൂടാതെ ഇപ്പം വെട്ടുന്നുണ്ട് അല്ലാതെപിന്നെ ഷോട്റ് ഉണ്ട് ഏത് വേണമെങ്കിലും പറഞ്ഞോ നമുക്ക് കാണാം ആ കാണാം കാണാം പാല് ഉറയൊഴിക്കുന്നത് നമ്മൾ വീപ്പയ്ക്ക് അകത്ത് ഉറയൊഴിക്കുന്നുണ്ട് ഷീറ്റ് ആക്കുന്നുണ്ട് ഏത് എങ്ങനെ വേണമെങ്കിലും കാണാം ചെയ്യാം പക്ഷെ നമുക്ക് ഈ ലോകത്തിലെ നാലാം സ്ഥാനമാ ഇന്ത്യക്ക് റബ്ബറിൻറ്റെം അത് ഇപ്പോൾ റബ്ബറിന് നേരെ നേരത്തത്തെ വിലയേക്കാൾ ഇപ്പോൾ ഇടിവാണ് അതുകൊണ്ട് കുറച്ച് തോട്ടങ്ങളൊക്ക വെട്ടാതെ കിടക്കുകയാണ് റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് എന്നാലും നമുക്ക് അവിടെപ്പോയി കാണാം പിന്നെ കുറച്ച് പേരൊക്കെ വെട്ടാൻ തുടങ്ങി പിന്നെയും കോൺഗ്രസ്കാർ പറയുന്നു ഇച്ചിരി വില കൂട്ടാം എന്നൊക്കെ പറയുന്നു ഇപ്പഴത്തെ പാർട്ടിക്കാരും അവരും പറയുന്നുണ്ട് റബ്ബറിന് വില കൂട്ടിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും തോട്ടങ്ങളൊക്കെ തെളിക്കാൻ തുടങ്ങി ആ കാണാൻ പറ്റും പോരെ പോര്

പിന്നെ ഉണ്ട് കാണാം നല്ല രസാ നമ്മൾ അതിലൂടെ അതിൻ്റെ കാറ്റൊക്കെ വീശി നമുക്ക് നല്ലായിട്ട് കാണാം പോര് പോര് പോര് പാലായിലോ കാഞ്ഞിരപ്പള്ളിയോ എവിടെ വേണം എന്ന് പറഞ്ഞാൽ മതി എരുമേലിയിലൊക്കെ എന്തുമാത്രം തോട്ടം ഉണ്ടെന്ന് അറിയോ പോര് ആ പറ്റും പറ്റും ഒരു കുഴപ്പവും ഇല്ല ആ ഞങ്ങൾക്ക് ഞങ്ങൾ റബ്ബറിനെ സ്നേഹിക്കുന്നവരാ കോട്ടയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റബ്ബർ ആണ് റബ്ബർ അല്ലേ നമ്മുടെ കൃഷി കൃഷിയില്ലേ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് നമ്മൾ അന്നജം അതിൽനിന്നല്ലേ നമ്മൾ കൃഷി ആ റബ്ബർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കേണ്ടേ ആ അത് അതൊക്കെ നമ്മൾ റബ്ബറിൽനിന്ന് പൈസ കിട്ടിയാലല്ലേ പറ്റത്തുള്ളൂ അത് റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ റബ്ബറ് കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ ഈ ലോകത്തിൽ എന്തെല്ലാം റബ്ബറ്കൾ ഉണ്ട് ചെരുപ്പ് ഉണ്ടാക്കാം മാറ്റ് ഉണ്ടാക്കാം ടയർ ഉണ്ടാക്കാം അത് ഏറ്റവും കൂടുതൽ ടയർ അല്ലേ ടയർനും ഇല്ലെങ്കിൽ പ്പിന്നെ ടയറാ ഉണ്ടാക്കുന്നത് കൂടുതലും പിന്നെ നമ്മൾ ഇപ്പോൾ പുറം രാജ്യത്തിലൊക്കെ കയറ്റി അയക്കുന്നൊക്കെയുണ്ട് ഫോറിൻ ഷീറ്റ് ആയിട്ട് മ്മ് നിങ്ങളുടെ നാട്ടിൽ കൃഷി പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പറ്റിയ സ്ഥലം വേണം തണുപ്പ് സ്ഥലമാ വെള്ളം കിട്ടണം അതുപോലെത്തന്നെ വെയിൽ കിട്ടണം ചൂടും കിട്ടണം രണ്ടും കിട്ടണം നിങ്ങൾക്ക് പാൽ കുറവായിരിക്കും ചിലപ്പോൾ ആ നഷ്ടമായിരിക്കും അതിന് പറ്റിയ സ്ഥലം വേണം അതിന് പറ്റിയ സ്ഥലമാണെങ്കിൽ നമ്മൾ കോട്ടയം ജില്ലയാ ഏറ്റവും നല്ലത് ഇഷ്ടംപോലെ ദേ എരുമേലി ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ തോട്ടം വിൽക്കാൻ കിടപ്പുണ്ട് പാലായിൽ ഉണ്ട് കാഞ്ഞിരപ്പള്ളിയുണ്ട് എവിടെ വേണമെങ്കിലും മേടിച്ചുതരാം ഏത് സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ മതി കറുകച്ചാലിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ നെടുങ്കുന്നത്ത് ഉണ്ട് തോട്ടം തോട്ടയ്ക്കാട് ഉണ്ട് മരം വെട്ടാൻ കിട്ടും ഷോട്ര് വെട്ടണം പഴയ ഈ വലിയ പ്രായംചെന്ന മരം വെട്ടുന്നതിനാണ് ഷോട്ര് വെട്ടുന്നത് അല്ലാത്ത ചെറിയ മരം വെട്ടുന്നുണ്ട് ഏതാ വേണ്ടത് പറഞ്ഞോ ചെറുമരം വേണോ വലിയ മരം വേണോ ഏത് മരമാ വേണ്ടത് അല്ലെങ്കിൽ തൈമരമാണോ വേണ്ടത് തൈമരം ഉള്ള തോട്ടമാണോ വേണ്ടത് അവിടെ കിട്ടുമല്ലോ അവിടെ ഇപ്പോൾ അവിടെ സ്ഥലത്തിന് വിലക്കുറവാ അവിടെ മതിയോ അവിടെ ആണെങ്കിൽ ഇപ്പോൾ ബസ് സൗകര്യം ഒക്കെ കുറവാ ഒരു ലക്ഷം രൂപയൊക്കെയേ ഉള്ളൂ വസ്തുവിന് അത് മതിയോ ബസ് സൗകര്യങ്ങളൊക്കെ കുറവാ അങ്ങനെയാണെങ്കിൽ കറുകച്ചാലിലും നെടുങ്കുന്നം ഭാഗം ഒക്കെ നമുക്ക് നോക്കാം അവിടെ ആകുമ്പോൾ ഇച്ചിരി ബസ് സൗകര്യങ്ങളൊക്കെയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിരമ്പുഴയിൽ പള്ളിക്കടുത്ത് നോക്കിയാലോ അതിരമ്പുഴയിൽ ഉണ്ടല്ലോ തോട്ടം നമുക്ക് അതിരമ്പുഴയിൽപ്പോയി നോക്കിയാലോ ആ പോര് പോര് ഞങ്ങളെ അവിടെ ഇപ്പം തീരെ വിലക്കുറവാ ഒരു ലക്ഷം രൂപയൊക്കെയൂള്ളൂ സെൻറ്റിന് അങ്ങനെയാണെങ്കിൽ എത്ര ഏക്കറ് വേണം മരം വെച്ച് പിടിപ് നമ്മൾ ഇപ്പോൾ ഒന്നും അറിയേണ്ട നമ്മൾ ഈ കൈതവെക്കുന്നവരെയിൽ കൊടുത്താൽ മതി അവർ മരം വെച്ച് പിടിപ്പിച്ച് വലുതാക്കി അവർ അതിനകത്ത് കൈതവെക്കും എന്നിട്ട് അവർ അതിൽനിന്നും പൈനാപ്പ്ൾ എടുത്തോളും അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യം ഒന്നും ഇല്ല ഇന്ന് ഇപ്പം കൈതക്കാ കൈതക്കാരെയിൽ കൊടുത്താൽമതി അവർ നമുക്ക് മരം വെച്ച് പിടിപ്പിച്ച് തരും എന്നാൽ ശരി ഓക്കേ